എനിക്ക് എവിടെ വേണമെങ്കിലും പോകാൻ അവസരം ലഭിച്ചാൽ ഞാൻ താജ്മഹൽ കാണാൻ പോവു പോകണം എന്നേ പറയൂ ഡൽഹി പോണം അവിടെയൊക്കെ കാണണം താജ്മഹലിൽ പോകണം എന്നേ ഞാൻ പറയൂ എന്റെ ഒരുപാട് പണ്ട് മുതലുള്ള ഒരു ആഗ്രഹം ആയിരുന്നു അത് ഒരുപാട് വളരെ വലിയ ഒരു ആഗ്രഹം ആയിരുന്നു അത് ഇപ്പൊൾ ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ ചില ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ട് അവരുടെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നല്ല ആഗ്രഹം ണ്ടു ആഗ്രഹം ഉണ്ട് പോകണം അവിടെ കാണണം എന്നൊക്കെ അപ്പോൾ പോകാൻ പറ്റീട്ടുണ്ടെങ്കിൽ അവിടെയായിരിക്കും പോവുക